ഈ വരുന്ന ശനിയാഴ്ച കോട്ടയം ടൗണിൽ വച്ചു ഒരു മൂസിക് ഫെസ്റ്റിവലിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഓട്ടിംഗ് ആസൂത്രണം ചെയ്യുകയാണ് അപ്പം അതിൽ താല്പര്യമുള്ളവർ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെന്റ് സാങ്കേതികത വിദ്യ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ ഉറപ്പാക്കുക അതുപോലെ ഇത് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് അതിൻ്റെ സുഗമമായ ബുക്കിങ്ങിന് വേണ്ടിയുള്ള എല്ലാ മുൻഗണനകളിലും എല്ലാവരും എടുത്തിരിക്കുന്നു എന്നു ഉറപ്പാക്കുകയും കൂടെ ചെയ്യുക